ഞാൻ മൊബൈൽ ഡാറ്റയും അതുപോലതന്നെ എന്താ പറയുക മൊബൈൽ ഡാറ്റയും അതുപോലതന്നെ വൈഫൈയും യൂസ് ചെയ്യുന്നുണ്ട് കാരണം ചില സമയങ്ങള് ഇപ്പം നെറ്റ്വർക്കിൻ്റെ ഇഷ്യുകൊണ്ടല്ല നമ്മളിപ്പം റീചാർജൊക്കെ ചെയ്യുമ്പോൾ നമ്മള് വൈഫൈ എടുക്കും പിന്നെ പബ്ലിക് എന്താ പറയുക ബസ്റ്റാൻഡ് അവിടെയൊക്കെ പോകുമ്പം ഫ്രീ വൈഫൈ ഉണ്ടല്ലോ അപ്പോൾ അത് അത് യൂസ് ചെയ്യും എന്ന് പിന്നെ മൊബൈൽ ഡാറ്റാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാനിപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ജീബിയാണ് കേറ്റുന്നത് ജിയോ ആണ് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അത്യാവശ്യം ഇപ്പോൾ ഫൈജി ആയോണ്ടന്നെ ഫൈവ് ജി ഫോണാണ് അപ്പം എന്താ പറയുക അൺലിമിറ്റഡ് നെറ്റ് ഇണ്ട് അപ്പം നല്ല രീതിയിലുള്ള സ്പീഡും കാര്യങ്ങളും ഉണ്ട് ഫോർജി ഒക്കെ വരുമ്പോൾ കുറച്ച് ഒരു കളിക്കാനും എന്താ പറയുക ഇതില് വീഡിയോസ് കാണുമ്പോൾ ഒക്കെ ചെറിയ ഒര് പ്രശ്നമുണ്ട് അപ്പോൾ പബ്ജി കളിക്കുമ്പോൾ ഒക്കെ കുറച്ച് ലാഗടിക്കാറുണ്ട് പക്ഷെ അല്ലാത്ത സമയങ്ങളില് മൊബൈല് ഡാറ്റ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നാറില്ല കാരണം ഫൈജി ഉള്ളോണ്ട് തന്നെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഫൈജിയും അതായത് ഫൈജി ആണല്ലോ അതുകൊണ്ടുതന്നെ പിന്നെ എന്ന് വെച്ചാല് മൊബൈൽ ഡാറ്റ നമുക്ക് തീർന്നു കഴിഞ്ഞാല് നമ്മള് ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചിട്ട് അടുത്ത ഫോണിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എല്ലാം എന്താ പറയുക രണ്ടിനും രണ്ടിനും മാറ്റമുണ്ട് ഇപ്പം വൈഫൈ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് വൈഫൈ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്